സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അതിലെല്ലാം അപ്ഡേറ്റായിട്ടാണ് നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറ് നമ്മളെവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെനിന്ന് എടുക്കുന്ന പിക്ച്ചറ് ഇപ്പം എന്താ പറയുക സീനറി ആയിക്കോട്ടെ അതുപോലെത്തന്നെ എന്താ പറയുക ആളുകളുടെ ഫോട്ടോ ആയിക്കോട്ടെ നമ്മുടെ സ്വന്തം ഫോട്ടോ ആയിക്കോട്ടെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടാറുണ്ട് കാരണം നമ്മളൊന്നു അപ്ഡേറ്റായി കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെത്തന്നെ മറ്റുള്ളവരൊന്ന് ചിന്തിപ്പിക്കാൻ നമ്മളവിടെയൊക്കെ പോയിയെന്നൊന്നറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസുണ്ട് അതിടുമ്പോൾ എന്താ പറയുക നമ്മുടെ ഫോട്ടോസാണ് അപ്പം നാലാൾ കാണുന്ന ഒരിതുണ്ട് പിന്നെ അതുപോലെത്തന്നെ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെത്തന്നെ ഫേസ്ബുക്കിൽനിന്ന് എന്താ പറയുക ഒരൂ നമ്മുടെ ഒരു ഫോളോവേർസ് നമ്മളെ എവിടെയെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെത്തന്നെ എന്താ പറയുക നമ്മുടെ നമ്മുടെ ഫോട്ടോയും അതുപോലെത്തന്നെ മറ്റു രീതിയിലുള്ള എല്ലാ ഫോട്ടോസാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെത്തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് അതുപോലെത്തന്നെ വാട്സാപ്പിലായിക്കോട്ടെ അതുപോലെത്തന്നെ വാട്സാപ്പിൽ നമ്മൾ സ്റ്റോറിയിടുന്നുണ്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതുപോലെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണിടുന്നത്